കെട്ടുനിറ എന്ന് പറയുന്നതും അതില് ഏറ്റവും വലിയ അനുഷ്ഠാനങ്ങളില് ഒന്നാണ് തേങ്ങയില് നെയ്യ് നിറച്ച് അവലും മലരും ചേര്ത്ത് കെട്ടും കെട്ടിയാണ് ഇവര് മല ചവിട്ടാന് പോവുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതശുദ്ധിയോടു കൂടി അയ്യനെ മനസ്സില് ധൃാനിച്ച് ശരണം വിളിയോട് കൂടിയാണ് ഇവര് മല ചവിട്ടാന് എത്തുന്നത് ഈ ക്ഷേത്രത്തില് എപ്പോഴും പുരുഷന്മാര്ക്കാണ് പ്രവേശനം പത്തു വയസ്സ് വരെയുള്ള പെണ്കുട്ടികള്ക്കും ആറുപത് ശേഷമുള്ള സ്ത്രീകള്ക്കുമാണ് ഇവിടെ പ്രവേശനം പുരുഷന്മാര്ക്കിതില് പ്രായഭേദമില്ല